ഇപ്പോൾ പഴയ തലമുറയും അതായത് യുവ തലമുറയും പിന്നെ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇതിൽ പറയുന്ന പോലെത്തന്നെ രണ്ടു വ്യത്യസ്ത ലോകങ്ങളാണ് ഇപ്പം പഴയ തലമുറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അമ്മയുടെ അമ്മ അമ്മയുടെ അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മ അച്ഛൻ്റെ അച്ഛൻ ആ അല്ലെങ്കിൽ അവരുടെ അച്ഛൻ്റെ അമ്മ ആ അച്ഛൻ അമ്മമാർ അങ്ങനെയുള്ള ഒരു കാലത്താണ് നമുക്ക് പഴയ തലമുറയെക്കുറിച്ചു പറയാനുള്ളത് അപ്പം അവർക്കെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താണെങ്കിലും ഫുഡ് കഴിക്കുന്നതാണെങ്കിലും അവർക്ക് അതിനുള്ള ചിട്ടകളും കാര്യങ്ങളുമൊക്കെയുണ്ട് ഇപ്പം അതായത് വസ്ത്രം അലക്കുന്നതാണെങ്കിലും അവർ കിടക്കുന്നതാണ് ഇപ്പം അവർ മരുന്ന് കഴിക്കുന്നതാണ് അപ്പോൾ അവർക്ക് എന്തിനാണെങ്കിലും അവർക്ക് ചിട്ടകളും കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷെ നമ്മളെ അതേപോലെ ഫോൺ കാര്യങ്ങളൊന്നും അധികം യൂസ് ചെയ്യാൻ അറിയില്ല യൂസ് ചെയ്യാൻ അറിയുന്നവരും ഉണ്ടാകും പക്ഷെ എന്തായാലും നമ്മളെ പോലെ കളിക്കില്ല നമ്മളെപ്പോലെ ഫോൺ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല കോൾ വിളിക്കും ജസ്റ്റ് കോൾ വിളിക്കും ആ ഒരു മൈൻ്റുള്ള ആൾക്കാരായിരിക്കും പഴയ തലമുറ പക്ഷേ യുവതലമുറാന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അവരുടെ ചിട്ടകൾ അൻസ് അതായത് അതീതമായിട്ടുള്ള പ്രവർത്തിക്കുന്നവരാണ് ഇപ്പോൾ ഫോണാണെങ്കിൽ ഫുൾ ടൈം ഫോണിൽക്കളി പിന്നെ ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിക്കും ഇല്ലെങ്കിൽ കഴിക്കില്ല അങ്ങനെയൊരു മൈൻറ്റുള്ള ആൾക്കാരാണ് യുവതലമുറ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ഈ മദ്ധ്യ തലമുറയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിനും ഇടയിലുള്ളതാണ് ഫോൺ കളിക്കും കുറച്ച് കോളിലും കളിക്കും ഫുഡ് കാര്യങ്ങൾ ആ ഒരു ടൈമിൽ കഴിക്കും എന്നു വെച്ചാൽ കഴിക്കും ചിട്ടകളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് എന്നും പറയാം അല്ലെങ്കിൽ ഇല്ലായെന്നു പറയാം ആ ഒരു രീതിയിലുള്ളവരാണ് പിന്നെ മദ്ധ്യ തലമുറ എന്ന് പറയുന്നത്